ഞാൻ കൂടുതലും റണ്ണിങ് ടൈമില് റണ്ണിങ്ലൊക്കെ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രീമിയം ഷൂസാണ് അതിപ്പോൾ അഡിഡാസ് നൈക്ക് പ്യൂമ അങ്ങനെയുള്ള ബ്രാന്ഡിൻ്റെയാണ് കൂടുതല് യൂസ് ചെയ്യാറുള്ളത് എന്താണ് വ്യത്യാസം എന്ന് വച്ച് പറഞ്ഞാൽ നമുക്ക് കംഫോർട്ടബിൾ ആണ് ലൈറ്റ് വെയ്റ്റാണ് അതേപോലെ റീബോക്കിൻ്റെ യൂസ് ചെയ്യാറുണ്ടുട്ടോ അത് നമുക്ക് ലൈറ്റ് വെയ്റ്റാണ് കംഫോർട്ടാണ് നമ്മളിപ്പോൾ മറ്റ് ഷൂവിനെ അപേക്ഷിച്ച് നമുക്ക് സിമ്പിൾ ആയി ഓടി പിടിയ്ക്കാൻ പറ്റും നമ്മള് എത്ര ടാർഗെറ്റാണെങ്കിലും നമുക്കതിനെ ഓടി എടുക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ വെള്ളം മഴക്കാലത്തും വേനൽക്കാലത്തും ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഷൂസാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടെനിക്ക് തോന്നിയിട്ടില്ല അതേപോലെ ഓടുമ്പോഴാണെങ്കിലും നല്ല ഏത് സ്ഥലത്ത് കൂടെ വേണമെങ്കിലും ഓടാം ഇപ്പോൾ നമുടെ വീട്ടിൻ്റെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽകൂടെയും അതേപോലെ മണ്ണിട്ട അത് മണ്ണും കല്ലും ഉള്ള റോഡിൽ കുടെ ആണെങ്കിലും ട്രാക്കിൽ കൂടെ ആണെങ്കിലും സിന്തെറ്റിക്കോ ഏത് ട്രാക്കാണെങ്കിലും അതിൽകൂടെ സിമ്പിൾ ആയിട്ടും ഓടാൻ പറ്റുന്നുണ്ട് അതേപോലെ പുല്ലിൽ കൂടെ ആണെങ്കിലും ഓടാൻ പറ്റും വഴുക്കലും ഒന്ന് ഉണ്ടാകുന്നില്ല സ്ലിപ്പാകണില്ല അത്പോലെ തന്നെ നല്ല കംഫോർട്ടായിട്ട് ഓടാൻ പറ്റുന്നുണ്ട് ഇത് തന്നെയാണ് പ്രത്യേകിച്ച് ഷൂസ് ഞാൻ എടുക്കാൻ പോവുക അതേപോലെ തന്നെ പെട്ടന്ന് കേട് വരുന്നില്ലാന്നൊള്ളതാണ് പ്രത്യേകത പെട്ടന്ന് തേയ്മാനം സംഭവിക്കുക അല്ലങ്കിൽ പെട്ടന്ന് നമ്മളിപ്പോൾ മറ്റേ ഷൂകളൊക്കെ മേടിക്കുമ്പോൾ ഒരു മാസം രണ്ട് മൂന്ന് മാസം ഇടുമ്പോളേക്ക് അതിൻ്റെ സ്റ്റിച്ചുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും ഇത് തന്നെ അനുസരിച്ച് പ്രീമിയം ഷൂവൊക്കെ ആയത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് മാസം നിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇതിനിപ്പോൾ മറ്റേ വേറെ സ്പോർട്സ് വെയർ ആണെങ്കിലും നല്ല കംഫോട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്കള് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് പ്രീമിയം ടൈറ്ററാണെങ്കിലും അതുപോലെതന്നെ ടി ഷർട്ടാണെങ്കിലും ട്രാക്ക് സ്യൂട്ട് പോലെയുള്ള കാര്യങ്ങളക്കെ നല്ലത് കംഫോർട്ട്നെസ്സ് ചേരുന്ന വസ്ത്രങ്ങള് തന്നെയാണ് യൂസ് ചെയ്യാറ് നമുക്കിപ്പോൾ ടൈറ്ററൊക്കെ ഇട്ട് ഓടുവാണെങ്കിൽ നമുക്ക് മറ്റേ ഡ്രസ്സ്കള് വോ അവിടെയു ഇവിടെയും ടൈറ്റാകും അതേപോലെ ചിലത് നമ്മളോടുമ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കീറി വരാനൊക്കെ സാധ്യത ഉണ്ട് ഇതാകുമ്പോൾ അതിനനുസരിച്ചിട്ട് സ്ട്രെച്ചബിൾ ആണ് അപ്പോൾ നമുക്ക് കംഫോർട്ടായിട്ട് ഓടാനൊക്കെ പറ്റുന്നുണ്ട് അത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളും റണ്ണിങ് ഷൂസൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്